ആ അയ്യപ്പ പണിക്കർ പുള്ളി നല്ല ഒരു എഴുത്തുകാരനാണ് പുള്ളി ഒരു കുട്ടനാട്ടുകാരനാണ് കുട്ടനാട് കുന്ന് കുന്നുകളും മലകളും ഒന്നും ഇല്ലാത്ത നാടാണ് കുട്ടനാട് അപ്പം അവർ ഇങ്ങനെ ഒരുമിച്ചൊക്കെ ഇരുന്ന് കുന്നുകളോ ഇത് ഇതൊന്നും ഇല്ലാത്തൊരു നാട് അവ് കുറേ പേർ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്നിട്ട് അവർ അതിനെ കുന്നുകളില്ലാത്ത നാട് അതേക്കുറിച്ച് ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് അപ്പം ഒരു പ്രാ ഒരു സമയത്ത് പുള്ളി ഒരു ഇതിൽ കുറിച്ചിട്ടുണ്ട് കുന്നുകൾ ഇല്ലാത്ത നാടാണെങ്കിലും കുന്നായ്മകളുടെ നാടാണ് എന്നാണ് അപ്പം അങ്ങനെയാണ് കുട്ടനാട് എന്നുള്ള ഒരു പേര് അതിന് വന്നതെന്നാണ് അങ്ങനെയാണ് പറയുന്നത് പുള്ളി നല്ലൊരു കവിയും നല്ല ഒരു പുള്ളിയുടെ ഇതൊക്കെ എഴുത്തുകൾ ഒക്കെ ഭയങ്കരെ താല്പര്യമുണ്ട് അങ്ങനെ അയ്യപ്പ പണിക്കർ നല്ല ഒരു ക എഴുത്ത് എഴുത്ത് കവിയാണ് കുട്ടൻ കുട്ടനാടിൻറെ ഇതെല്ലാമുള്ള ഒരു ഒരു കവി എന്ന രീതിയിൽ പുള്ളിയെ ഭയങ്കര ക് താൽപ്പര്യം ഉണ്ട് പുള്ളിയോട് ഭയങ്കര പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ ഒക്കെ അത് ഇതെല്ലാം കേൾക്ക് അത് ക് വായിക്കുന്നതിനോടൊക്കെ താൽപ്പര്യം ഉണ്ട്